ഇന്ത്യയില് വ്യവസായം കൊണ്ടു വന്ന പ്രമുഖരില് ഒരാൾ ആണ് ടാറ്റ ടാറ്റജിയുടെ മേഖലയില് എല്ലാ വിധ ഇരുമ്പ് തൊട്ട് കര്പ്പൂരം ഉപ്പ് വരെയുള്ള മേഖലയില് വ്യാപിച്ച് കിടക്കുന്നു അദ്ദേഹത്തിന്റെ പ്രമുഖ ടാറ്റ സ്റ്റീല്സ് അതേമാതിരി തന്നെ ടാറ്റയുടെ ബസ് റൂട്ട് ടാറ്റ ബസ് ലോറി പിക്ക് അപ്പ് ചെറുവാഹനങ്ങള് എല്ലാം മൂപ്പരുടെ പ്രത്യേക മുൻ കാഴ്ച്ചപ്പാട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതേമാതിരിക്ക് തന്നെ വിദ്യാഭ്യാസ മേഖലയില് സര്വേ പള്ളി രാധാകൃഷ്ണന് അദ്ദേഹം നമ്മുടെ ഇന്ത്യന് രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല മേഖലകളും തുറന്ന് തന്നിട്ടുണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ഇന്ന് ഇന്ത്യയില് കാണുന്ന വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടത് സര്വേപ്പള്ളി ഡോക്ടര് എസ് രാധാകൃഷ്ണനാണ് വിനോദസഞ്ചാരത്തില് നമ്മുടെ വീഗാലാന്ഡ് വീഗാലാന്ഡ് ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് അത് നമ്മുടെ കൊച്ചിക്ക് അടുത്താണ് കാക്കനാട് ആണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ കുട്ടികള്ക്ക് മുതൽ ആഭാല വൃദ്ധജനങ്ങള് മുതല് വയസ്സായവര്ക്കും കുട്ടികള്ക്കും എല്ലാവര്ക്കും ഒരു പോലെ ഉപയോഗിക്കാന് കഴിയുന്ന ഒരു വിനോദ മേഖലയാണ് ഇന്ന് വീഗാലാന്ഡ് പിന്നെ സാങ്കേതിക വിദ്യയിൽ നമ്മുടെ ഒരു പ്രമുഖ വ്യക്തിയാണ് സാങ്കേതിക വിദ്യ നമുക്ക് തുറന്ന രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം ഐടി മേഖലയില് പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ് ഇന്നത്തെ ആധുനിക വിദ്യകളൊക്കെ ടെലഫോണ് മുതല് ഇന്ന് കാണുന്ന ടിവി ഫോണ് ഇതിലൊക്കെ പ്രമുഖ കൈ മൂപ്പര്ക്ക് ഉണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന് നമ്മുടെ ഇന്ത്യന് സാങ്കേതിക വിദ്യക്ക് അടിത്തറ പാകിയ ഒരാളാണ് ഗതാഗത മേഖലയില് നമുക്ക് പറയാവുന്നത് ആദ്യമായി നമ്മുടെ കേരളത്തില് ഗതാഗതം തുടങ്ങിയത് തിരുവതാംകൂര് രാജാക്കന്മാര് ആയിരുന്നു ആ ഗതാഗത സംവിധാനം ഇപ്പോള് നമ്മുടെ കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് റോഡ് ട്രാന്സ്പോര്ട്ട് കോര്പ്പറേഷന് എന്ന പേരില് ഇപ്പോഴും തുടര്ന്നു വരുന്നുണ്ട് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗതാഗതത്തിന് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്